കേരളത്തിലെ കാർഷിക മേഖലയെ വളരെ നല്ല രീതിയിലാണ് സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ ട്രെൻഡുകള് സ്വാധീനിക്കുന്നത് അതു വളരെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇന്ന് വളരെ സുതാര്യമായ രീതിയിലുള്ള രീതികള് വരുന്നതുകൊണ്ട് ആ മേഖലയെ പരിപോഷിപ്പിക്കാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട് കൃത്യമായ ബയോ ടെക്നോളജി ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് അപ്പോള് കൃഷി കാർഷിക മേഖല വളരെ ഉയർന്ന നിലയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഈ ഒരു രീതി പ്രയോജനപ്പെടുത്തുന്നുണ്ട് അതിന് ചെലവ് കുറവാണ് സമയ ലാഭമുണ്ട് അങ്ങനെ കാർഷിക മേഖലയെ കേരളത്തിലെ വളർത്തി കൊണ്ടുവരാനായിട്ട് നമ്മള്ക്ക് വളരെയേറെ സഹായകമാണ് ആ രീതികള് ആ രീതിയിലോട്ട് വരുന്നതുകൊണ്ട് പണം ലാഭം സമയലാഭം അതുപോലെതന്നെ ഉൽപ്പന്നങ്ങള് വളരെയധികം കിട്ടുന്നുണ്ട് അതുകൊണ്ട് അത് തന്നെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് കർഷകരുടെ ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് അതുകൊണ്ട് കർഷകർക്ക് പ്രയോജനമായ രീതി അവലംബിക്കുവാനായിട്ട് കർഷകർ തന്നെ അതിന് മുന്നിട്ട് വരണം